ഒരു മാസമായി

ഇൻഷുറൻസ് ക്ലെയിമിന് അപേക്ഷിച്ചിട്ട് നിങ്ങളിൽ നിന്ന് യാതൊരു വിവരവും എനിക്ക് ലഭിച്ചിട്ടില്ല നിങ്ങളുടെ ഈ അനാസ്ഥയിൽ എനിക്ക് വളരെ ഖേദമുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇൻഷുറൻസ് പ്രീമിയം കറക്റ്റായിട്ട് അടയ്ക്കുന്ന ഞാൻ ഒരു ക്ലെയിമിന് അപേക്ഷിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് ഞാൻ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കിയ വിള നഷ്ടമായി അത് നഷ്ടമാകുമെന്ന് ഞാൻ മുൻകൂട്ടി കണ്ടതിനാലാണ് ഞാൻ അതിന് ഇൻഷുറൻസ് എടുത്തത് ഇൻഷുറൻസ് എടുത്തിട്ട് വിളനാശം സംഭവിച്ചു വിളനാശം സംഭവിച്ചിട്ട് നിങ്ങൾ എന്നിട്ട് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നില്ല ഞാൻ ഇൻഷുറൻസ് പ്രീമിയം അടച്ച ഞാനാണ് ഞാൻ ഇതിൻ്റെ ക്ലെയിമിന് അപേക്ഷിച്ചത് എന്നിട്ട് നിങ്ങൾ ഇൻഷുറൻസ് പ്രീമിയം ഇൻഷുറൻസിനു ക്ലെയിം തരുന്നതിനെക്കുറിച്ചൊരു വാക്കുപോലും സംസാരിക്കുന്നില്ല ദയവായി ക്ലെയിം ഡിപ്പാർട്ട്മെൻ്റ് ഒരു കത്ത് തരിക നിങ്ങൾക്ക് എൻ്റെ ക്ലെയിം നമ്പർ ഇതൊക്കെയാണ് ഈ ക്ലെയിം നമ്പർ എനിക്ക് ആശങ്കയുണ്ട് എത്ര നാളായി എനിക്ക് വിളനാശം സംഭവിച്ചു എനിക്ക് നഷ്ടമുണ്ടായി സാമ്പത്തികമായി നഷ്ടങ്ങൾ ഉണ്ടായി ഞാൻ കടവും വിലയും എല്ലാം മേടിച്ചാണ് ഞാൻ കൃഷി ചെയ്തത് ഈ കൃഷി ചെയ്തു നഷ്ടമുണ്ടാക്കി